മനുഷ്യൻ ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തിന് കളികൾ അത് അത്യന്താപേക്ഷിതമാണ് കുറച്ച് നേരം മറ്റുള്ളവരുമായി നമ്മൾ ഉല്ലാസത്തിലേർപ്പെടുമ്പോൾ നമുക്ക് മനസ്സിന് നല്ല സുഖവും അതുപോലെ തന്നെ ശാരീരികമായ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും കുറച്ച് സമയങ്ങൾ ഒരു ദിവസത്തിൽ ഒരു മണിക്കൂറ് വരില്ല രണ്ട് മണിക്കൂറ് നമ്മൾ അതിന് വേണ്ടി സമയം നീക്കി വെക്കേണ്ടതാണ് മാനസികമായ ക്ഷേമത്തിനും ശാരീരികമായ ക്ഷേമത്തിനും നമുക്ക് എപ്പോഴും കളികൾ ആവശ്യമാണ് നമ്മൾ ജോലി ചെയ്യുന്നത് കൂടാതെ മറ്റുള്ള കളികൾ ക്യാരംസ് കളി ചെസ്സ് കളി ഇതൊക്കെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉന്മേഷം അതുപോലെ തന്നെ ചെസ്സ് കളി ബുദ്ധിക്ക് ഉന്മേഷം പകരുന്ന ഒരു കളിയാണ്